മൃഗസംരക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും നല്ലയിനം പശുക്കൾ കാര്യങ്ങൾ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനെ വളര്ത്താന് വേണ്ടി സഹായിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കണം അതിനു വേണ്ടീട്ടുള്ള അതിനു കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിന് പുല്ല് കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ വെള്ളം കാലിത്തീറ്റ ഇങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പശു നല്ല ആരോഗ്യ ആരോഗ്യവാനായിട്ട് വരുന്നതായിരിക്കും അപ്പം അത് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം ഇപ്പം നമ്മുടെ സ്ഥലങ്ങളിലൊക്ക കൂടുതലായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾക്ക് ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ കിട്ടനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കര്ണാടക സ്റ്റേറ്റ് അങ്ങനത്തെ ഉള്ള സ്റ്റേറ്റുകളൊക്കെ ആശ്രയിച്ചിട്ടാണ് പുല്ല് കാര്യങ്ങളൊക്കെ കൊണ്ടു വരുന്നത് അവിടത്തെ ചോളപ്പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നമ്മളിവിടെ കൊണ്ടു വരുന്നേ പറയാം പിന്നെ ചെമ്മരിയാടുകൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയില് ഇഷ്ടം പോലെ ഉണ്ട് പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആട് കോഴികൾ കോഴികള് എന്ന് പറഞ്ഞാൽ ഫാമ് കാര്യങ്ങളൊക്കെ ഈ ഉണ്ട് പിന്നെ നാടന്കോഴി കൃഷികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ മെയിന് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൂട് കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടാന് വേണ്ടീട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും